വികസനത്തിൻ്റെയും വളർച്ചയുടെയും കാര്യത്തിൽ വയനാട് ജില്ലയിപ്പം മുൻപന്തിയിൽ തന്നെയാണ് എന്നാലും ഒരുപാട് പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട് ഇതിപ്പോൾ പരിസ്ഥിതീടെ കാര്യത്തിലായാലും രാഷ്ട്രീയത്തിൻ്റെ കാര്യത്തിനായാലും ദാരിദ്ര്യത്തിൻ്റെ കാര്യത്തിലായാലും ഒക്കെ ജില്ലയിൽ പ്രശ്നങ്ങളൊക്കെ തന്നെയാണുള്ളത് അപ്പം നമ്മൾ എന്ന ഇതിനു വേണ്ടീട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളെന്തൊക്കെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദാരിദ്ര്യം കുറക്കാൻ വേണ്ടീട്ട് എല്ലാ ഇപ്പം എന്താ പറയാ ആ ഈ തൊഴിലില്ലാത്തവർക്ക് ജോലി ജോലിയില്ലാത്തവർക്ക് ജോലി നൽകാൻ അതാണ് ഒന്നാമത്തെ പ്രശ്നം ഇപ്പോൾ ഇപ്പോൾ എത്ര പഠിച്ചിട്ടും ജോലിയില്ലാതെ നടക്കുന്ന ഒരുപാട് പേർ നമ്മുടെ വയനാട്ടിൽ തന്നെയുണ്ട് ഇപ്പോം ഇപ്പോൾ എന്താ പറയാ ഡിഗ്രി കഴിഞ്ഞിട്ട് അതുപോലെത്തന്നെ എഞ്ചിനീയറിംഗ് കോഴ്സ് കഴിഞ്ഞവരൊക്കെയുണ്ട് നമ്മുടെ ഇപ്പോഴും ഉണ്ട് അവരിപ്പം ജോലിയില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന ആൾക്കാരൊക്കെ ഇപ്പോഴും നമ്മുടെ ഉണ്ട് അപ്പോൾ ദാരിദ്യം കുറക്കാൻ വേണ്ടീട്ട് ജോലി എല്ലാവർക്കും നൽകാൻ പഠിച്ചവർക്ക് ജോലി നൽകാൻ പിന്നെ പരിസ്ഥിതിയിൽ എപ്പോഴും വൃത്തിയായിരിക്കുക പിന്നെ രാഷ്ട്രീയപരമായിട്ട് നമ്മുടെ വികസനംന്ന് പറയുന്നത് വികസനമെന്ന് പറയുന്നത് എല്ലാം പഴയ നല്ല പ്രവർത്തനങ്ങളൊക്കെ ഉണ്ടായിട്ടും അത് പിന്നെ പൊളിച്ച് കളഞ്ഞ് പിന്നേം വലിയ ഒരിത് കെട്ടുന്നയല്ല അതുംകൊണ്ട് തന്നെ നമ്മുടെ ജില്ലയിൽ എങ്ങനെ മെച്ചപ്പെടുത്തിയെടുക്കാംന്ന് പറയുന്നതാണ് വികസനമെന്ന് പറയുന്നത് അത് കൂടുതലായിട്ട് ശ്രദ്ധിക്കണം